മദർ തെരേസയെപ്പറ്റിയാണ് ഞാൻ പറയാനാഗ്രഹിക്കുന്നത് ഞാനൊരു പുസ്തകം മതേ മദർ തെരേസയെപ്പറ്റിയുള്ള ഒരു പുസ്തകം വായിക്കാനിടയായി ഒരു കന്യാസ്ത്രീയായിട്ടാണ് ഇന്ത്യയിൽ വന്നത് വന്ന് കുറച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷം കന്യാസ്ത്രീ മഠത്തിൻ്റെ ചുവരുകളിൽ നാല് ചുവരുകൾക്കിടയിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ആ കന്യാസ്ത്രീക്ക് തോന്നി കൽക്കട്ടയുടെ ഓരോ തെരുവുകളും നടന്ന സമയത്ത് താൻ ഒരു മതത്തിൻ്റെ നാല് ചുവരുകളിൽ നിന്ന് പ്രാർത്ഥന മാത്രം പോരാ തൻ്റെ ജീവിതം കൊണ്ട് ഒരുപാട് ജീവിതങ്ങൾക്ക് പ്രയോജനപ്പെടണം എന്നുള്ള ആശയം മദറിൻ്റെ മനസ്സിൽ ഉദിച്ചു അതിന് ആധികാരികളുടെ അംഗീകാരവും വാങ്ങി പുസ്തകത്തിൽ പറയുന്നത് പോലെ അഞ്ചുരൂപായും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മഠത്തിൻ്റെ പടികൾ ചവിട്ടി പുറത്തിരഞ്ഞിയത് ഓരോ ന ഓരോ നഗരത്തിൻ്റെ പാന്തപ്രദേശങ്ങളൊക്കെ കുഷ്ഠ രോഗികളും അവശരും ആയ ഒത്തിരി ഒത്തിരി മനുഷ്യര് മദർ തെരേസ എടുത്ത് കൊണ്ടുവന്ന് ഒരു വാടകയ്ക്ക് കെട്ടിടം വാങ്ങി അവിടെ താമസിപ്പിച്ചു അങ്ങനെ ദിവസം തോറും ദിവസവും അവർക്ക് അവശ്യമായ ഭക്ഷണത്തിനും മരുന്നിനും ഒക്കെ വൈകുന്നേരങ്ങളിൽ മദറ് തെണ്ടാനിറങ്ങുമായിരുന്നു അങ്ങനെ മറ്റൊരു ജോലിയും മദറിന് അറിയില്ലായിരുന്നു അങ്ങനെ ഒരിക്കൽ മദറ് ഭിക്ഷ തെണ്ടാനിറങ്ങിയ സമയത്ത് ഒര് മനുഷ്യൻ്റെ നേരെ കൈ നീട്ടിക്കഴിഞ്ഞപ്പോൾ കാർക്കിച്ച് ആ കയ്യിൽ തുപ്പിയത് ഞാൻ ഓർക്കുകയാണ് ഞാൻ വായിച്ചിരുന്നു അപ്പോൾ അന്നേരം ചെറുപുഞ്ചിരിയോട് തന്നെ ആ തുപ്പൽ സ്വന്തം വസ്ത്രത്തിൽ തേച്ചുകൊണ്ട് അദ്ധേഹത്തിന് വീണ്ടും കൈ നീട്ടിയിട്ട് പറഞ്ഞു എനിക്കുള്ളത് അങ്ങ് തന്ന് കഴിഞ്ഞു എൻ്റെ മക്കൾക്കുള്ളതെങ്കിലും അങ്ങ് തരണം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഈ മദ ഈ മദർൻ്റെ മുഖത്ത് നോക്കി നിങ്ങളരാണ് എങ്ങനെയാണ് ഇതിന് സാധിക്കുക അപ്പോൾ മദർ പറഞ്ഞു ഞാനൊരു പാവമൊരു കന്യാസ്ത്രീയാണ് എനിക്ക് കുറെ മക്കളുണ്ട് എന്നെക്കാൾ പ്രായമുള്ളവരുണ്ട് കൊച്ചു കുട്ടികളുണ്ട് അവർ രോഗികളാണ് അവർ വൃദ്ധരാണ് അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല അവർക്ക് ഉടുക്കാൻ വസ്ത്രമില്ല അവർക്ക് കഴിക്കാൻ ആഹാരമില്ല മരുന്നൊക്കെ വേണം അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങയോട് യാചിക്കുന്നത് അന്നേരം അദ്ദേഹം പറഞ്ഞു മദർ ഇനി വിഷമിക്കേണ്ട എനിക്ക് മദറിൻ്റെ കൂടെ വരണം എന്നാവശ്യപ്പെട്ടു അങ്ങനെ അദ്ദേഹം മദറിൻ്റെ ആശ്രമത്തിലേക്ക് വരികയും അവടെ ഉണ്ടായിരുന്ന അവരെ വാടക കെട്ടിടം ഒഴിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ബഹുനില കെട്ടിടത്തിലേക്ക് അവര് താമസം മാറ്റി മാത്രമല്ല മദറിനോട് പറഞ്ഞു ആ മനുഷ്യൻ ഇനിമുതൽ മദറ് തെണ്ടാന് ഇറങ്ങേണ്ട ഇത്രയും പേർക്ക് കഴിക്കാൻ ആഹാരവും ഭക്ഷിക്കാൻ ആഹാരവും അതുപോലെ തന്നെ മരുന്നും വസ്ത്രവുമെല്ലാം ഞാൻ തന്നുകൊള്ളാം എനിക്ക് ഈശ്വരൻ ഇഷ്ട്ടം പോലെ തന്നിട്ടുണ്ട് അതിൽ നിന്നൊരു ഭാഗം ഇവർക്ക് ഞാൻ കാഴ്ച വെയ്ക്കുന്നു അങ്ങനെ ആ മദർ എ എൻ്റെ മനസ്സിൽ അത് മായാതെ കിടക്കുന്ന ഒരു അനുഭവമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണ് മനുഷ്യനെ നേടിയെടുക്കുന്നത് മദർ ചെയ്തത് ആ മനുഷ്യനെ നന്മ സ്വരൂപനെ കാണിച്ച് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് മനുഷ്യർക്ക് ഉപകരമായി ചേരുകയും ചെയ്ത ഈ ഒരു കൊച്ചു പ്രവർത്തി നമുക്കും അതുപോലെ കൊച്ചു കൊച്ച് നല്ല പ്രവർത്തനം ചെയ്ത് സമൂഹത്തിനെ നല്ല പാഠം പഠിപ്പിക്കാം